ഇന്ത്യൻ ആരോഗ്യരംഗത്ത് വേണ്ടതായ പുരോഗതി നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ള കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ ചിക്കൻഗുനിയായും നിപ്പായും വളരെ നിപ്പ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മൾ അതിൻ്റെ കൃത്യമായ ലാബ് പരിശോധനകളൊന്നും നമ്മൾ ചെയ്യാൻ വളരെയേറെ ഈ അടുത്തകാലത്ത് ഉണ്ടായ ആ കുട്ടിയുടെ മരണം പോലും നമുക്ക് നല്ല രീതിയിൽ അതിനെ പിന്തുടരാൻ സാധിച്ചില്ല അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ കുട്ടി മരിക്കുകയും ഇപ്പോൾ വീണ്ടും നൂറ്റി അറുപത്തിയെട്ട് പേരോളം അതിൻ്റെ നിരീക്ഷണത്തിൽ ആകുകയും ചെയ്തിരിക്കുന്നു ഇതിനെ നമ്മൾ നേരിടുവാനായി നമ്മൾ കൈ കോർത്ത് നിൽക്കണം ഇന്ത്യയിലെ സംവിധാനം മെഡിക്കൽ സംവിധാനം നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും ഇല്ല എന്നാൽ വിദേശരാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൻറെ വൈദ്യ സഹായങ്ങൾ വളരെ മെച്ചപ്പെട്ടതാണ് മറ്റ് രാജ്യങ്ങളിൽ നമ്മൾ പൈസ കൊടുത്ത് ചികിത്സിക്കുമ്പോൾ ഇവിടെ കഴിവതും നമുക്ക് ചികിത്സകൾ കുറച്ച് കുറ കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ സർക്കാർ തലങ്ങളിൽ ഉണ്ട് എന്നാലും നമ്മുടെ മറ്റ് സംവിധാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ രോഗങ്ങൾ അതായത് പകർച്ചവ്യാധികൾ ഓരോരോ കാലഘട്ടത്തിലും പുതിയ രോഗങ്ങളായി വളരുന്ന ഒരു സംവിധാനമുണ്ട് ഈ രോഗങ്ങളെ നമ്മൾ ഉന്മൂലനം ചെയ്യേണ്ട ചെയ്യേണ്ട കാര്യമാണ് അതിനുവേണ്ടി നമുക്ക് കൈ കോർക്കണം ഇപ്പം മഴ സമയങ്ങളിൽ ആണെങ്കിൽ എച്ച് വൺ എൻ വൺ ഈ പനികൾ ഇതെല്ലാം നമ്മളെ വേട്ടയാടുകയാണ് ഇതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാൻ നമ്മള് വളരെ ഇപ്പോൾ ആശുപത്രിയൊക്കെ നിറഞ്ഞു പോയിരിക്കുന്നൊരു സമയമാണ് അപ്പോൾ ആ അതിനെതിരെ മുൻകൂറായി നമ്മൾ ഇതിന് എന്ത് ചെയ്യണം പ്രതിരോധങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു തയ്യാറെടുപ്പ് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്